മലയാളഭാഷയെന്ന് പറയുമ്പോൾ നമുക്കേവർക്കും അറിയാവുന്നതാണ് നമ്മുടെയെല്ലാം മാതൃഭാഷയാണ് മലയാളഭാഷയെന്നുള്ളത് മലയാളഭാഷയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കില് ആദ്യമായിട്ട് അത് കൂടുതലും സംസാരിക്കപ്പെടുന്നത് അത് കൂടുതലും വായിക്കപ്പെടുന്നത് അത് കേരളത്തിലും അതുപോലെ ലക്ഷദ്വീപ് അതുപോലെ പോണ്ടിച്ചേരി എന്നീ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലൂടെയാണ് പക്ഷേ എന്നിരുന്നാലും മലയാളികൾ പല ഇന്ത്യയുടെ പല ഭാഗങ്ങളിലൂടെയും പല കോണുകളിലൂടെയും അതല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പുറത്ത് രാജ്യത്തിൻ്റെ പല കോണുകളിലൂടെയും ഈ ഒരു ഭാഷയെ ഡെവലപ്പ് ചെയ്യുന്നതിൽ വളരെയധികം പ്രാതിനിധ്യം നൽകുന്നുണ്ടെന്ന് നമുക്ക് ഈയൊരു ആധുനിക കാലഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും മലയാളഭാഷയെന്ന് പറഞ്ഞാൽ ഏകദേശം ഒമ്പതാം നൂറ്റാണ്ട് ഒമ്പതാം നൂറ്റാണ്ടിന്റെയും പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെയും ഒരു ഇടയിലായിട്ടാണ് ഈയൊരു ഭാഷ ഉരുത്തിരിഞ്ഞു വരുന്നത് ഈയൊരു ഭാഷയെന്ന് പറഞ്ഞാല് ഏകദേശം ആദ്യ കാലഘട്ടത്തില് ഇതൊരു സംസ്കൃതമായും പിന്നെ അത് മലയാളഭാഷയിലേക്ക് ഉരുത്തിരിഞ്ഞുവരികയുമാണ് ചെയ്യുന്നത് നമുക്കേവർക്കും അറിയാം തുഞ്ചത്ത് എഴുത്തച്ഛന് ഇതിലെ പ്രധാനപ്പെട്ട മലയാളഭാഷയുടെ പ്രധാനപ്പെട്ട ഒരു ഈയൊരു ഭാഷയെ ഡെവലപ്പ് ചെയ്യുന്നതിൽ കൂടുതല് ആൾ കൂടുതൽ ഡെവലപ്പ് ഈയൊരു കേരളത്തിലാകട്ടെ കേരളത്തിന് പുറത്താകട്ടെ കൂടുതല് ഡെവലപ്പ് ചെയ്യുന്നതിൽ വളരെയധികം പങ്കുവഹിച്ചിട്ടുള്ള ഒരു മഹദ് വ്യക്തിത്വമാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ അദ്ദേഹത്തിൻ്റെ കവിതകളും കഥകളുമാണ് ഈയൊരു ഭാഷയെ കൂടുതല് ബാക്കിയുള്ള ഭാഷയെക്കാൾ കൂടുതല് ഒന്നും കൂടി സവിശേഷതയുള്ളതാക്കി മാറ്റുന്നതെന്ന് നമുക്കേവർക്കും മനസ്സിലാക്കാൻ സാധിക്കും ഈയൊരു ഭാഷയെന്ന് പറഞ്ഞാല് മലയാളഭാഷയെന്ന് പറഞ്ഞാല് ആദ്യ കാലഘട്ടത്തില് അത് ദ്രാവിഡന്മാരിൽ നിന്ന് ദ്രാവിഡഭാഷയായിരുന്നു ആ ദ്രാവിഡന്മാരിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളതാണെന്ന് നമുക്ക് ചില ഭാഗങ്ങളിൽ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് പല ജനങ്ങളും പുറത്ത് രാജ്യങ്ങളിലുള്ള പല ജനങ്ങളും കച്ചവടാവശ്യങ്ങൾക്കായിട്ട് കേരളത്തിൽ വരികയും കേരളത്തിലെ ഭാഷയായിട്ടുള്ള സംസ്കൃതം മലയാളഭാഷ പഠിക്കുകയും അത് അവര് അവരുടെ നാട്ടിൽ പോയിട്ട് അവരുടെ രാജ്യത്തിൽ പോയിട്ട് അത് അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് കൂടുതല് പല പുസ്തകങ്ങളിലൂടെയും പല കഥകളിലൂടെയും ആർട്ടിക്കിളുകളിലൂടെയും നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതില് യാതൊരു വിധ സംശയവുമില്ലെന്ന് നമുക്ക് തീർച്ചയാണ് അതുപോലെ തന്നെ മലയാളത്തെക്കുറിച്ച് മലയാളഭാഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഭാഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലും വ്യത്യസ്തമായിട്ടുള്ള സ്ലാങ്ങുകളാണുള്ളത് പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കില് കാസർകോഡ് ജില്ലയിലെ കാസർകോഡ് ജില്ലയിലെ വേറെയൊരു മലയാളത്തിലെ വേറെയൊരു സ്ലാങ്ങ് അതുപോലെ കോട്ടയം തൃശ്ശൂര് മലപ്പുറം എന്നുള്ള പല ജില്ലകളിലും പല വ്യത്യസ്തമായിട്ടുള്ള ഡിഫറൻറ്റായിട്ടുള്ള സ്ലാങ്ങുകളാണ് ഉപയോഗിച്ചുവരുന്നതെന്ന് നമുക്ക് തീർച്ചയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്